വ്യാപാരത്തിലായാലും ഈ വാണിജ്യത്തിലായാലും കൂടുതലായിട്ട് ഈ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നു വെച്ചുകഴിഞ്ഞാൽ മലയാള ഭാഷയെ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ മലയാള ഭാഷയിൽ എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് ആൾക്കാർ വന്നിട്ടായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യാപാരം ചെയ്യുന്നതിനൊക്കെ അവർക്ക് കൂടുതലായിട്ടും മലയാള ഭാഷ പഠിക്കുകയാണ് അവര് ചെയ്യുന്നത് അതായത് പുറത്തു നിന്ന് ആര് വന്നുകഴിഞ്ഞാലും അവര് ഇവിടെ വന്നു കഴിഞ്ഞാലാണെങ്കിലും മലയാള ഭാഷയില് എന്താ പറയുക പുറത്തു നിന്ന് ഇപ്പോൾ ബംഗാളികളൊക്കെ വന്നിട്ടാണെങ്കിലും അവര് ഇവിടെ വന്ന് കഴിഞ്ഞ് മലയാള ഭാഷ പഠിച്ചിട്ടേ അവരതിലൂടെയാണ് എന്താ പറയുക വ്യാപാരം ഒക്കെ ചെയ്യുന്നത് അതിലൂടെ അങ്ങനെ അവർക്ക് ഒരുപാട് സമ്പത്ത് വ്യവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പം മലയാള ഭാഷ ഉപയോഗിച്ച് തന്നെ സമ്പത്തിന് എന്താ പറയുക ഭാഷയുടെ സഹായത്തോടുകൂടി തന്നെ അതായത് എന്താ പറയുക ഇങ്ങനെ വാചകത്തിലൂടെ തന്നെ വാചകമടിച്ച് ആൾക്കാരെ വീഴ്ത്തി അതിലൂടെ നമുക്ക് എന്താ പറയുക സാമ്പത്ത് വ്യവസ്ഥയില് നല്ലൊരു വ്യത്യാസം തന്നെ വരുത്താൻ ഇപ്പോൾ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വാണിജ്യത്തിനും വ്യാപാരത്തിനും ഒക്കെ ഇതിലൂടെ ഇങ്ങനെ എന്താ പറയുക മലയാള ഭാഷ എന്താ പറയുക ഭാഷയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ച് ഒടിച്ച് സംസാരിച്ച് ആളുകളെ വലയില് വീഴ്ത്താം എന്നുള്ളൊര് മെയിൻ ഉദാഹരണമാണ് മലയാള ഭാഷ അതായത് മലയാള ഭാഷയിൽ എല്ലാവരേയും എന്താ പറയുക സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ എളുപ്പത്തില് വ്യാപാരവും വാണിജ്യവും ഒക്കെ നടക്കും അതുകൊണ്ടാണ് മലയാള ഭാഷയെ പിന്നെ ഇതിന് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും മലയാള ഭാഷയെ ഇതിനുവേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്